ഹലോ കാസർഗോഡ് മുൻസിപ്പൽ ലൈബ്രറി ഓ ക്രൈം ത്രില്ലേഴ്സ് ആണോ നോവലുകൾ ഉണ്ട് അങ്ങനത്തെ ആണോ വേണ്ടത് അല്ല ഹലോ കേൾക്കാവോ ആ നോവൽ ആണല്ലേ മലയാളം ആണോ വേണ്ടത് അല്ല ഇംഗ്ലീഷ് ആണോ എങ്ങനത്തെയാണ് ആണല്ലേ ആ എന്നാല് ഇപ്പോൾ ശ്രീപാർവ്വതി ഇല്ലേ മിസ്റ്റിക് മൗണ്ടൻ അതേപോലെ മാധവി ലില്ലീ ബേണാർഡ് എന്നീ ബുക്കുകൾ ഇറങ്ങിയിട്ട് ഉണ്ട് അത് പുതിയ എഡിഷനാണ് പുതിയ പുസ്തകങ്ങളാ ആ ഇത് നല്ല ക്രൈം ത്രില്ലേഴ്സ് ആണ് പിന്നെ വേണമെങ്കില് ഉന്മാദത്തിൻ്റെ പോലീസ് സർജ്ജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇപ്പോൾ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ആണെങ്കില് ഇതുന്ന് നല്ല നല്ല വിഷയങ്ങള് കിട്ടാൻ സാധ്യത ഉണ്ട് എങ്ങനെ ആണ് ഈ ക്രൈമുകള് നടക്കുന്നത് അത് എങ്ങനെയാണ് അന്വേഷിക്കാമെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് വേണമെങ്കില് നാളെ വന്നോളൂ ആ അതെ അതെ ഇന്ന് ഓ

നാളെ ഒൻപത് മണി രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ ഉണ്ട് ആ ഒരു പത്ത് രൂപ എടുത്തോളൂ കെട്ടോ പത്ത് രൂപ എന്താന്ന് വെച്ചാല് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതിനാണ് ആ അതെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മതി അത് എടുക്കുന്ന ബുക്കുകൾ അനുസരിച്ച് ആയിരിക്കും ഒരു ബുക്ക് ആണെങ്കിൽ ഏഴ് ദിവസം രണ്ട് പുസ്തകം അങ്ങനെ ആണെങ്കില് കുറച്ച് ദിവസം അധികം കിട്ടും മൂന്ന് ദിവസം അധികം അങ്ങനെ അത് നാളെ എടുക്കുന്ന പോലെ നമുക്ക് തീരുമാനിക്കാം ഒരാള് മൂന്ന് ബുക്ക് ആ അതെ ഇല്ല ഇല്ല കാരണം ചില ആൾക്കാര് കൊടുത്തിട്ട് തിരിച്ച് തരൽ ഇല്ല അപ്പോ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതെ അതെ അപ്പോൾ കുട്ടി വന്നോളൂ നമുക്ക് നോക്കാം പേര് എന്താണ് രഞ്ജന ആണല്ലേ ചിലപ്പോൾ ഞാൻ നാളെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ആ അതെ സ്ഥലം ഓ ഓ ആണല്ലേ ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞത് ഞങ്ങള് ഇന്ന് കുറച്ച് നേരത്തെ അടക്കുന്നുണ്ട് അതാണ് ആണ് ആ നാളെ ഒരു ഒൻപത് മണിക്ക് വന്നോളൂ എല്ലാ ദിവസം ഇല്ല ഞായറാഴ്ച ഇല്ല ഞായറാഴ്ച ലൈബ്രറിയില് പരിപാടി അങ്ങനെ എല്ലാം ആയിട്ട് ഉണ്ടാകും വേറെ ആൾക്കാർക്ക് അങ്ങനെ അതുകൊണ്ട് ഉണ്ടാകില്ല തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഉണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ ആ ഏത് സമയത്തും വന്ന് ലൈബ്രറിയിൽ ഇരുന്നും വായിക്കാം പുസ്തകം കൊണ്ട് പോകുകയും ചെയ്യാം ആ ശരി ഓക്കെ ഓക്കെ